എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗളകരമായ സംഭവം എന്ന് പറയുന്നത് വിവാഹമായിരുന്നു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങള് തമ്മിൽ ചേരുന്ന ഒരു പ്രക്രിയയാണ് വിവാഹത്തിന് മുന്പായിട്ട് നിശ്ചയം എന്ന് പറഞ്ഞ ഒരു നാട്ടുനടപ്പ് നമ്മുടെ സമൂഹത്തിലുണ്ട് നിശ്ചയ സമയത്താണ് നമ്മുടെ വിവാഹത്തിന്റെ സമയവും എല്ലാം കുറിക്കുന്നത് അത് കഴിഞ്ഞ് വിവാഹം അടുക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബന്ധുമിത്രാധികളെയും നാട്ടുകാരെയും നമുക്ക് അറിയാവുന്ന എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് വിവാഹത്തിന് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഹിന്ദുക്കളാകുമ്പോൾ അമ്പലം അമ്പലങ്ങളിലാണ് സാധാരണ വിവാഹം നടത്തുന്നത് അത് ഏത് അമ്പലത്തിലാണോ ദേവി ദേവി ആണെങ്കിൽ ദേവി ദേവന് ആണെങ്കിൽ ദേവന് അവര് ന്റെ ഒരു സാന്നിധ്യത്തിലാണ് വിവാഹം നടത്തുന്നത് നമ്മുടെ മതാപിതാക്കളാണ് കൈ പിടിച്ച് വരനെ ഏല്പ്പിക്കുന്നത് അതൊരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പെണ്കുട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിവാഹമെന്ന് പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു കഴിയുമ്പഴത്തേക്കും പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് പ്രസവമാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതാണ് പ്രധാനപ്പെട്ട ഒരു മംഗളം ഇതായിട്ടു ഒരു വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് വരുന്നത് കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പേര് ഇടുന്നൊരു ചടങ്ങുണ്ട് അതിന് നൂല്കെട്ട് എന്ന് പറയും നമ്മുടെ നാട്ടിൽ നൂലുകെട്ടു സമയത്താണ് കുഞ്ഞുങ്ങൾക്കു പേരിടുന്നതും എല്ലാം അതൊരു വളരെ മംഗളകരമായ ഒരു സംഭവമാണ് ആദ്യത്തെ കുഞ്ഞാവുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ അതിനും നമ്മൾ ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും എല്ലാം ക്ഷണിക്കുന്നുണ്ട് അതും ഒരു ഒരു ഈശ്വരന്റെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ കുഞ്ഞിന് എന്താണ് കുഞ്ഞിന്റെ ചോറൂണാണ് ചോറൂണും ഇത് പോലെ തന്നെ നമ്മൾ വളരെ വിശേഷപ്പെട്ടാണ് നടത്തുന്നത് അതും നമ്മുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് അവര്ക്ക് ഊണൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതും ഒരു ഇപ്പം അമ്പലങ്ങളിലാണെങ്കിൽ അങ്ങനെ ചോറൂണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ പിറന്നാളാണ് നമ്മള് ആഘോഷിക്കുന്നത് അതും വളരെ നല്ല രീതിയിലാണ് ഒന്നാമത്തെ പിറന്നാളാവുമ്പോൾ വിശേഷിച്ചും നമ്മൾ നല്ല രീതിയില് തന്നെ ആഘോഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞു കുഞ്ഞിനെ ഏഴ് ആറ് ഒരു മൂന്നു വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിനെ എഴുത്തിന് ഇരുത്താറുണ്ട് അത് നമുക്ക് ഏത് ക്ഷേത്രത്തിലാണോ അങ്ങനെ അല്ലെങ്കിൽ പള്ളിയിലാണോ അങ്ങനെ നമുക്ക് ക്ഷേത്രത്തിൽ എഴുത്തിന് ഇരുത്താം അത് നമ്മളുടെ ഇഷ്ടം പോലെയാണ് പോകുന്നത് അത് കഴിഞ്ഞൂ കുഞ്ഞ് കുഞ്ഞിനെ നഴ്സറിയിലൊക്കെ വിടുകയും ഒക്കെ ചെയ്യുന്നു പിന്നെ ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ആകുമ്പഴത്തേക്കും കുഞ്ഞിനെ സ്കൂളില് ചേര്ക്കുന്നു അത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പിന്നെ അത് കഴിഞ്ഞു ഇപ്പോൾ പെണ്കുഞ്ഞുങ്ങൾ ആണെങ്കിൽ അങ്ങനെ സ്കൂളിൽ പഠിച്ചു പഠിച്ചു ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും പ്രായപൂര്ത്തി ഒക്കെ ആകുക ഒക്കെ ചെയ്യുന്നുണ്ട് അതും ഹിന്ദുക്കളുടെ ഹിന്ദുക്കളിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും അതും ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് കുഞ്ഞ് പെണ്കുട്ടികളാണെങ്കിൽ പ്രായപൂര്ത്തി ആകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷമായ ഒരു ചടങ്ങാണ് അത് കഴിഞ്ഞു പിന്നീട് ആ കുഞ്ഞു വള